എൻ്റെ പൂന്തോട്ടത്തെ നിലനിർത്താൻ ഞാൻ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് കാരണം ഈ കീടങ്ങളുടെ ശല്യം ഉണ്ടല്ലോ അത് ഉണ്ട് അപ്പം ആ നല്ല രീതിയിൽ വളർന്ന് വരുന്ന സമയത്താണ് ഈ ഈ മുഞ്ഞ പോലത്തെ മുഞ്ഞ കൊതുക് പിന്നെ ഈ എലി എലി ശല്യമുണ്ട് എലി ശല്യം എലി എലിയെ പിടിക്കാൻ വേണ്ടി ഞാൻ കെണികൾ വെച്ചു അത് വെഷം വേറെ വെച്ചു എ എലി എലിയെ പിടിക്കുന്ന ഇത് വെച്ചു കെ കെണി വെച്ചു അതിനകത്തൊക്കെ എലിയെ കിട്ടുന്നുണ്ട് എന്നാൽ ഇതിൽ പിന്നേം ഇങ്ങനെ വന്നോണ്ടിരിക്കും പിന്നെ ഈ മുഞ്ഞ കാരണം മുഞ്ഞക്കിപ്പോഴുള്ള സ്പ്രേ അടിക്കാൻ മ മ മ മരുന്ന് മേടിക്കാൻ വേണ്ടി ഈ കുറച്ച് ദൂരം പോകണം അപ്പം യാത്ര ചെയ്തൊക്കെയാണ് പോകേണ്ടത് പോയാലെ അത് മേടിക്കാൻ ഒക്കത്തൊള്ളൂ വഴിയിൽ ചിലപ്പോൾ വണ്ടി സൗകര്യം കാണത്തില്ല പൈസ അങ്ങനെ എങ്കിലും വണ്ടി ഓ ഒപ്പിച്ച് അവിടെ യാത്ര ചെയ്ത് അത് മേടിച്ചോണ്ട് വന്നിട്ട് ഇത് പിന്നേം ഇതിനെ ഇങ്ങനെ ഒരു സ്വന്തം ഈ ഇതായതുകൊണ്ട് നമ്മൾ ശരിക്കതിനെ പ പരിരക്ഷിക്കുവാണ് ആ പരിരക്ഷിക്കുമ്പോളത്തേക്ക് ഇതിനെ ഈ കീടങ്ങളെ ഓടിക്കാൻ വേണ്ടി പല പണികളും പല വഴി നോക്കുന്നുണ്ട് നോക്കി പക്ഷേ നല്ലൊരു വിജയം കിട്ടീട്ടുമുണ്ട് അങ്ങനെ നമ്മൾ ഒരു അതിനെ സംരക്ഷിച്ച് വരുന്നു ഇപ്പോഴും ഒരു പ ഒരു നയൻറ്റി പെർസെൻറ്റ് ഓക്കെ ആയിട്ട് ഇരിക്കുന്നു